ആ ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ ഉള്ള മലമൂത്ര വിസർജനം സാധാരണയല്ല ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ സാധാരണയല്ല പക്ഷേ അതുകൊണ്ട് ഒത്തിരി ദോഷ ഗുണങ്ങൾ ഉണ്ട് ഇതിപ്പം നമ്മൾ ഒരു സമൂഹം താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആരോഗ്യകരമായ ഭവിഷ്യത്ത്കൾക്കും ഒക്കെ കാരണമാവും അത് പല തരത്തിലുള്ള രോഗങ്ങളിലേക്ക് ഇപ്പം കുട്ടികൾളേക്കാണേലും പ്രധാനമായും ഒത്തിരി ഭവിഷ്യത്ത്കൾ ആരോഗ്യകരമായ ഭവിഷ്യത്ത്കൾ ഒത്തിരി ഉണ്ടാക്കാനായിട്ട് അത് അത് ഇടവരുത്തും